വ്യവസായ സംഘാടകർ വളരെയധികം വികസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആല്ലാന്നു തന്നെ വേണം പറയാൻ കാരണം ഇന്ത്യെൻ്റെ കാര്യത്തിൽ വളരെ ചുരുക്കം സഹായങ്ങൾ മാത്രമാണ് വ്യവസായികൾക്ക് ഇന്ത്യയിൽ ഗവൺമെൻറ് കൊടുക്കുന്നത് അതിൽ കൂടുതലും കുറച്ചുടെ മുന്നോട്ടുനിന്ന് സ കൂടുതൽ സഹായങ്ങൾ വ്യവസായികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇന്ത്യ വളരെ മുന്നിലോട്ട് അതായത് ലോകോത്തര തലങ്ങളിൽ വെച്ചുനോക്കുമ്പോൾ ഇന്ത്യയ്ക്ക് വളരെ മുന്നിലെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള അതിനുള്ള ബുദ്ധി വളർച്ചയും അതിനുള്ള ആ ഒരു തോട്ട്സുമുള്ള ഒരാൾക്കാരാണ് ഇന്ത്യയിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിലെ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇന്ത്യയെ വളരെ മുന്നിലോട്ട് ലോകോത്തരതലത്തിൽ മുൻ പല രാജ്യങ്ങളെയും കടത്തിവെട്ടി മുന്നിലെത്താൻ പറ്റിയൊരു സാഹചര്യം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യം പക്ഷേ അതിനുള്ള ഒരു സാഹ സഹായവും സാഹചര്യവും ഒക്കെ നമ്മുടെ ഗവൺമെൻറ് ഒണ്ടാക്കിക്കൊടുക്കുവായിരുന്നെങ്കിൽ കുറച്ചുടെ നല്ലതായിരുന്നു പിന്നെ സർക്കാർ എങ്ങനെയാണ് സംരംഭങ്ങളെ സഹായിക്കുന്നത് പ്രത്യേകത രീതിയിലുള്ള സഹായങ്ങളൊന്നും സർക്കാർ കൊടുക്കുന്നില്ല സർക്കാർ സർക്കാർക്ക് എവിടെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് നോക്കീട്ട് മാത്രമാണ് ബാക്കിയുള്ളവരെ സഹയിക്കാറുള്ളു ഇപ്പം ഈ സഹായിക്കുന്നതോടുകൂടി അവർക്കതിൽ നിന്നും എത്രയൊക്കെ അവർക്ക് ഉപകാരപ്പെടും അതായത് അത് സർക്കാരിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നമെന്ന് പറയാം സർക്കാരിൽ നിന്നുള്ള ഒരു ഒറ്റ ഇതിനെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല പക്ഷേ എന്നാൽ പോലും അതിൽ ഉൽപ്ര ഉള്ള ജോലി ചെയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർ അവരുടേതായ ലാഭങ്ങൾ നോക്കി മാത്രമാണ് സഹായങ്ങൾ സഹായങ്ങളല്ല വ്യവസായികൾക്ക് കൊടുക്കെണ്ടത് കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അതിൽ പലപ്പോഴും വിട്ടുവീഴ്ചകളും പല പാളിച്ചകളും സംഭവിക്കാറുണ്ട്